ഒരുപാട് യാത്രകൾ പോയതിൽ എപ്പഴും ഓർക്കുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് സൂര്യ ഉദയം കാണാൻ വേണ്ടി പോയതു തന്നെയാണ് ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടെ ഒരു ദിവസം രാവിലെ നാലുമണിക്ക് എണീറ്റു എന്നിട്ട് വണ്ടിയെടുത്ത് അങ്ങനേ പോയി ഒരു സൂര്യോദയം കാണാൻ വേണ്ടി ഒരുപാട് മേലോട്ട് നടക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ നടന്നു നടന്നു അവിടെ എത്തുകയും കറക്റ്റ് സമയത്ത് സൂര്യൻ്റെ ഉദയം കറക്റ്റായി കാണാൻ പറ്റുകയും ചെയ്തു അതുപോലെ തന്നെ കന്യാകുമാരിയിലെ സൂര്യാസ്തമയം കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ സൂര്യോദയം സൂര്യോസ്തമയം എന്നൊക്കെ പറയുന്നത് ഇപ്പഴും ഓർത്തു വെക്കുന്ന ഒരു നല്ല നിമിഷങ്ങളിൽ പെടുന്നതാണ് ഇതു കൂടാതെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ആ ഊട്ടി യാത്ര എന്ന് പറയുന്നത് എപ്പഴും ഓർമ്മകളിൽ ഉണ്ടാകും കാരണം അത്രക്ക് മനോഹരമായിരുന്നു ആ ഓരോ യാത്രയിലെയും ഓരോ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എപ്പഴും ഓർമ്മകളിലും എപ്പഴും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളായിരുന്നു അത് അതേപോലെ തന്നെയാണ് സൂര്യോദയവും സൂര്യാസ്തമയവും കണ്ട ഓരോ നിമിഷവും